പാസഞ്ചർ ബെസ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദേശരാജ്യങ്ങളിൽ ഉള്ള പാസഞ്ചർ ബെസ്സിനെപ്പോലെ തന്നെ അത്രേം ഒന്നും ആയിട്ടില്ലെങ്കിലും നമ്മളുടെ നാട്ടിലുള്ള പാസഞ്ചർ ബെസ്സ്കളും ഏറെ കുറെ നല്ല രീതീൽ പ്രവർത്തിക്കേം നല്ല സർവ്വീസ് നടത്ത്കേം ചെയ്യുന്നവരാണ് അത്പോലെ തന്നെ നാൽപ്പത്തഞ്ച് സീറ്റ് അൻപത് സീറ്റൊക്കെയുള്ള പാസഞ്ചർ ബെസ്സ്കളുണ്ട് എനിക്ക് ഒരു യാത്രാ അനുഭവം തന്നെ പറയാനുണ്ട് ഞാൻ ഒരിക്കൽ പാസഞ്ചർ ബെസ്സിൽ ഇവിടെന്ന് തിരുവനന്തപുരത്തിന് പോവേം സൈഡ് സീറ്റ് എനിക്ക് ഇരിക്കാൻ കിട്ട്കേം സൈഡ് സീറ്റിലിരുന്നോണ്ട് പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിക്കാനും വളരെ മാന്യതയുള്ള രീതീൽ മാന്യമായിട്ടുള്ള യാത്രക്കാർ അവരുടെ കൂട്ടത്തിലുള്ള യാത്രയൊക്കെ വളരെ സന്തോഷകരമായിട്ടുണ്ട് അത്പോലെ തന്നെ നമ്മളുടെ ബെസ്കളെ നമ്മുടെ ബെസ്സിൻ്റെയുള്ള ആ

അത് ബെസ്സ് നിയന്ത്രിക്കുന്ന ആളും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി കയറുന്ന കയറുന്ന യാത്രക്കാരെ സുരക്ഷിതമായി എവിടെ നിന്ന് കയറുന്നോ എവിടേക്ക് പോകണമോ അവിടെ സുരക്ഷിതമായി എത്തിക്കാൻ അവർക്കുണ്ടാകുന്ന ആവൊരു ഉത്തരവാദിത്തം വളരെ വലുതായിട്ടാണ് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഉണ്ട് അത്പോലെ തന്നെ നമ്മളുടെ പാസഞ്ചർ ബെസ്സ്കൾ ഒരിക്കലും മോശമായിട്ട് എനിക്ക് തോന്നീട്ടില്ല നൂറ് ശതമാനം ബെട്രല്ലെങ്കിലും പോലും അത്യാവശ്യം നമുക്ക് യാത്രകൾക്ക് ഉപകരിക്കത്തക്ക രീതീൽ നല്ല സർവ്വീസ്കൾ നടത്തുന്നതാണ് നല്ല സീറ്റ് അത്പോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം വളരെ നല്ലതാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഈ യാത്രാ ബെസ്സിൽ നിന്നും കിട്ടുന്ന അവരുടെയാ സർവ്വീസ് നമ്മൾടോട് സമീപനം ഒക്കെ വളരെ നല്ലതാണ് അതോണ്ട് നമ്മുടെ പാസഞ്ചർ ബെസ് നല്ല രീതീൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത്പോലെ തന്നെ നമുക്ക് അതിൽ ആ പാസഞ്ചർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം അത് വളരെ വലുതുമാണ് എനിക്ക് പല പ്രാവശ്യം പല യാത്രകളിലും കിട്ടീട്ടുള്ള അനുഭവങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നീരിക്കുന്നത് അതോണ്ട് നമ്മുടെ പാസഞ്ചർ ബെസ്സ്കൾ നല്ല രീതീൽ പോകുന്നതിനും പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തുടർന്നും നല്ല നല്ല രീതീൽ പോകാനുള്ള ആ ഒരു അവസരം അവർക്ക് ഉണ്ടാകുവാൻ വേണ്ടീട്ട് പ്രത്യേകം പരിശ്രമിക്കുന്നുണ്ട് അവർ പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ അവരുടെ സഹകരണവും ഒക്കെ എപ്പോഴും ഉണ്ട്